ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിഅഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമുന്ന് ഇരുപത്തിഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമുന്ന്